വായ്പകളെക്കുറിച്ചും ആദായത്തെക്കുറിച്ചും കുട്ടികള്ക്കെ കൂടുതല് കേന്ദ്രീകരിച്ച് പഠിക്കണം എന്ന് തോന്നിയെക്ക നല്ലൊരു കാര്യമാണ് കാരണം കുട്ടികൾ ഇതറിഞ്ഞിരിക്കുമ്പോൾ ഭാവിയിലത് അവര്ക്കൊരു നല്ല കാര്യമായിട്ട് വരും ഒരു ബാങ്കില് പോയാല് ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് അവർ അറിഞ്ഞിരുന്നാല് അവര്ക്ക് നല്ലൊരു സഹായമാവും കാരണം ഇപ്പോൾ ബാക്കിയുള്ളവരോട് ചോദിച്ച് ചെയ്യേണ്ട കാര്യം അവർക്ക് സ്വയം ചെയ്യുമ്പോള് അതവര്ക്കന്നെ നല്ലൊരു കാര്യമാണ് മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കേണ്ടി വരില്ല ഇതൊക്കെ അറിയുമ്പോൾ ഇതിനെ കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളും അവർ അറിഞ്ഞിരിക്കും എങ്ങനെ വായ്പ എടുക്കണം എങ്ങനെ ഇതൊക്കെ അടക്കണം എന്നെക്കുറിച്ച് അവരറിഞ്ഞിരിക്കുമ്പോള് അവരന്നെ സ്വയം പര്യാപ്തരായി നിക്കുകയാണ് മറ്റ് ആളുകളോട് ചോദിച്ച് കഷ്ടപ്പെടണ്ട ആവശ്യം അവര്ക്ക് വരുന്നില്ല അവർ സ്വയം ചെയ്യുമ്പോള് അത് അതിന്റെതായ രീതിയില് അവര്ക്ക് പറ്റാവുന്ന രീതിയില് ചേരും മറ്റൊരാൾ പറയുമ്പോൾ അവരെ ഇഷ്ടത്തിനാവും ചെയ്യുക സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന പോലെയാവില്ല മറ്റൊരാളുടെ ഇഷ്ടത്തിന് ചെയ്യണത്